ചെടികൾ വളർത്തുവാനൊക്കെ എനിക്ക് നല്ല ഇഷ്ട്മാണ് ചില ചെടികൾക്ക് ചെടികള് പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നതും വീടിനും പരിസരങ്ങൾക്കുമൊക്കെ നല്ല സൗന്ദര്യം വളർന്ന് വരുന്ന പൂക്കളുള്ളത് ഒക്കെ കാണാനും എല്ലാം നമുക്ക് വളരെയധികം ഇഷ്ട്മാണ് പക്ഷേ ചില പൂക്കള് ചില സീസണിൽ മാത്രേ ഉണ്ടാവുകയുള്ളു റോസ ചെടികള് ആണെങ്കില് അത് ചെറിയ പിന്നെ ചെടിചട്ടിക്കകത്ത് വച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് പൂക്കളിങ്ങനെ വിടർന്ന് നിൽക്കുന്നത് കാണാൻ നല്ലതാണ് പിന്നെ വലിയ മരം പോലത്തെ ചെടികള് വന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതാണ് അധികം സ്ഥലമോ സൗകര്യമോ ഇല്ലാത്തവർക്ക് അത് വലിയ പാടാണ് പിന്നെ ഇല ചെടികളാണെങ്കിൽ എത്രയും നല്ലതാണ് അതായത് അതിന് വലിയ സംരക്ഷണം കൊടുത്തില്ലേലും ഇല ചെടികള് അത് ആ ഒരേ ലെവലിലൊക്കെ വെട്ടി ഒരേ വെട്ടി നിർത്തി കഴിയുമ്പോൾ അത് കാണാനായിട്ട് ഭംഗിയുണ്ട് ഈ പൂക്കളുള്ള ചെടികള് വളർത്തുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ അതിന് വേണ്ട നല്ല കെയറു കൊടുത്തെങ്കിൽ മാത്രമേ നല്ല പൂക്കൾ നമുക്ക് കൂടെ കൂടെ വെള്ളം ഒഴിച്ചും അതിന് ചേരുന്ന വളങ്ങൾ ഇട്ടും പൂക്കളെ സംക്ഷിക്കാൻ പറ്റുകയുള്ളു പിന്നെ ചില പൂക്കള് നമ്മുടെ വീടുകളിൽ വളർന്നെന്ന് ഇരിക്കില്ല ചില ചില ചെടികള് സ പിന്നെ ഓരോ അവസരങ്ങൾക്കും കാലാവസ്ഥക്ക് അനുയോജ്യമായി മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അത് ശരിക്കും പൂക്കൾക്ക് കെയർ കൊടുത്ത് തന്നെ സംരക്ഷിക്കേണ്ട ഒര് കടമയുണ്ട് നമുക്ക് പിന്നെ പഴങ്ങളാണെങ്കില് പഴങ്ങളൊക്കെ നമുക്കിപ്പം വാഴപ്പഴം ഏത്തപ്പഴം അതുമൊക്കെ ഇതിപ്പോൾ എന്താ ശരിക്കും സാധനമൊക്കെ നല്ല വണ്ണം സ്ഥലവും സൗകര്യമുള്ളവർക്ക് മാത്രമേ ഈ പഴങ്ങളൊക്കെ നടാനുള്ള സൗകര്യമുള്ളൂ ആ പഴങ്ങളൊക്കെ നടുകയാണെങ്കില് നമ്മുടെ നിത്യം വീടുകളിലെ ആവശ്യങ്ങൾക്കും മറ്റ് വിഷാംശങ്ങളൊന്നും ഇല്ലാതെ നമ്മൾക്ക് വീട്ടിൽ തന്നെ കഴിക്കാനുള്ള ആ രീതിയിലുള്ള പഴങ്ങളൊക്കെ നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് അത് ഭക്ഷിക്കാൻ പറ്റും പിന്നെ പഴങ്ങൾക്കും അതുപോലെ തന്നെ നല്ല അന്ത കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം മഴയോ എപ്പഴും ഉള്ള സമയത്ത് അത് പറ്റത്തില്ല പിന്നെ അതിന് വളരാനുള്ള ആ കാലാവസ്ഥ അനുസരിച്ച് വേണം നമുക്ക് അത് വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളു പൂക്കളെ സംബന്ധിച്ചും അതുപോലെ തന്നെ പിന്നെ പച്ചക്കറിയാണെങ്കിൽ നമ്മുക്കത് നല്ലതായിരിക്കും പച്ചക്കറി പാവലും വെണ്ടയും പടവലും അങ്ങനെ ഉള്ളതാണെങ്കിൽ അതിനൊക്കെ പന്തല് കെട്ടി ഇട്ട് കഴിഞ്ഞാല് അത് വെള്ളം ഒഴിച്ച് അത് പന്തലായി കഴിഞ്ഞാൽ തന്നെയും നമ്മള് ശരിക്കും അത് കെ കെ കെയറ് ചെയ്യണം അതായത് ഈ പച്ചക്കറികളിലൊക്കെ ഒര് സൈസ് പുഴുക്കള് പിടിക്കും പുഴുക്കള് ഈച്ചയൊക്കെ കുത്തുകയൊക്കെ ചെയ്യും അതിനുള്ള മരുന്നുകളടിക്കണം അത് അത് പച്ചക്കറി പിന്നെ വെണ്ടയ്ക്ക അതുപോലൊക്കെ ആണെങ്കിൽ നമുക്ക് അധികം സ്ഥലവും സൗകര്യമൊന്നും വേണ്ട നമുക്ക് ചെറിയ പിന്നെ ചാക്കിനകത്ത് നിറച്ചാണെങ്കിൽ നമുക്ക് പച്ചക്കറികൾ നടാം അത് നമുക്ക് നിത്യവും ഓരോ ദിവസങ്ങളിൽ നമുക്കത് നിത്യോപയോഗത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ അതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് കാണിച്ചിട്ട് ആ മണ്ണ് മാറ്റിയിട്ട് വേറെ നമുക്ക് പച്ചക്കറികള് ഇതിനകത്ത് നട്ട് വളർത്താൻ പറ്റും അതുപോലെ പയറും അതുപോലൊക്കെ ഉള്ള സാധനങ്ങള് പയറ് പാവയ്ക്ക പപ്പടമൊക്കെ ആണെങ്കില് നമുക്ക് ഒര് ഒരാഴ്ച്ച ഒര് രണ്ട് പ്രവാശ്യമൊക്കെ എടുക്കാനും വീട്ടിൽ പുറത്ത് നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടാത്ത ഒരു അവസ്ഥകള് നമ്മളതുപോലെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ചീര ചീരയാണെങ്കിലും നമ്മളത് പാകി കിളിപ്പിച്ചതിന് ശേഷം അത് കുറെ അതും മാറ്റി വെച്ച് അത് പറിച്ച് പറിച്ച് മാറ്റി വച്ചിട്ട് അതിൻ്റെ ഇടവഴിയൊക്കെ അതിന് ഇളക്കി ഇളക്കി ഇളക്കി കൊടുത്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല ഫലങ്ങള് ഉണ്ടാകാനും സാധിക്കും പച്ച പിന്നെ അത് നമുക്ക് പിന്നെ കറി വെക്കുന്നതിനും അതുപോലെ അവിയല് സാമ്പാറ് എല്ലാ കാര്യത്തിനും നമുക്ക് ഈ പച്ചക്കറി ഈ ചീരയുടെ ഇതെല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റും പിന്നെ പച്ചക്കറി നമുക്ക് കൂടുതലും വീടുകളിൽ നട്ടുവളർത്തുന്നത് നല്ലതാണ് ഇപ്പോൾ നമുക്കീ പിന്നെ ചന്തകളിൽ അവിടെയൊക്കെ കിട്ടുന്നതും കൂടുതലും ഈ വിഷാംശം കലർന്നതാണ് നിസ്സാരം ഒരു കറിയേപ്പില പോലും നമുക്ക് വാങ്ങാൻ പറ്റത്തില്ലാത്ത ഒരു കണ്ടീഷൻ എത്തിയിരിക്കുകയാണ് അതനുസരിച്ച് നമുക്ക് വീടുകളിൽ നട്ട് വളർത്തുന്നത് ഏറ്റവും നല്ല കാര്യം അതും കൂടുതലും എനിക്ക് പച്ചക്കറികളോടാണ് താത്പര്യം പിന്നെ പൂക്കള് പൂക്കള് നമുക്ക് ഒര് പരിധി കണ്ടങ്ങനെ ഒരുപാട് നട്ട് വളർത്തുന്നതിലും ഇഷ്ടം പച്ചക്കറി കുറച്ചാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും പൂക്കളിലാണെൽ അത് ആസ്വദിക്കുകയും അങ്ങനെ ഉള്ളതും ഉള്ള ഒര് ഇതേ ഉള്ളൂ പഴങ്ങളും അതുപോലെ നമുക്ക് ഇപ്പഴും നട്ട് വളർത്തുകാന്ന് വെച്ചാൽ ഏത്തപ്പഴവും വാഴപ്പഴവും അങ്ങനെയുള്ള സപ്പോട്ട പിന്നെ റംബൂട്ടാൻ അതുപോലെയൊക്കെ ഉള്ള വന്ന പഴങ്ങളെ നമുക്ക് ഉണ്ടാവുന്നത് അതൊക്കെ ഓരോ സീസണുകളിലും ഒരു വാഴയാണേൽ കൃഷി ചെയ്താൽ നമുക്കിത്ര വർഷങ്ങൾ എത്ര മാസങ്ങൾ എടുക്കും ഒരു വാഴ കുലച്ച് വരാൻ പത്ത് മാസത്തോളം ഒരു ഏത്തവാഴയും അതുപോലെ വളം ഇടാൻ ഒര് ആറേഴ് മാസം കൊണ്ടേ നമുക്ക് ഒരു ഫലം കിട്ടുകയുള്ളു ആ കണക്കിന് പച്ചക്കറികളാണെങ്കിൽ നമുക്ക് പയറ് നട്ടു അതൊരു വള്ളി വീശിക്കഴിഞ്ഞ് ഉടൻ തന്നെ നമുക്കാ പച്ചക്കറികള് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള ചീരക്കാണെങ്കിലും അതിന് വലിയ വളം ഇല്ല വലിയ ഒത്തിരി നാളത്തെ ഇതാ ഇപ്പം കാലതാമസമൊന്നും വരുന്നില്ല നമുക്ക് കുറച്ച് ഏതാണ്ട് ഇത്ര ദിവസം കഴിയുമ്പഴത്തേന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ പാവല് ഇട്ട് വള്ളി വീശാതെ പക്ഷെ ശരിക്കും കെയറ് ചെയ്യുക കാ വന്ന് കഴിഞ്ഞാൽ അത് നമ്മള് പേപ്പറ് കൊണ്ടൊക്കെ കവറു ചെയ്യുക ഇത് നമുക്ക് സംരക്ഷിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ ഞങ്ങളീ പരിസരങ്ങളില് പയറും വെണ്ടയും പാവലും കൂടി നമുക്ക് നല്ല ഒരു വിളവെടുക്കാന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ചെടി പച്ചിപ്പായിട്ട് നിൽക്കുന്നത് നമുക്ക് ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് അതായത് കാർബൺഡയോക്സൈഡ് നല്ല ഒരു നമുക്ക് ശ്വസനത്തിന് നല്ലയൊരു എല്ലാ രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് ഇത് കിട്ടും ചെടികളില് ശ്വസിക്കുമ്പോൾത്തേക്ക് നല്ല തണുപ്പും നല്ല ഒരു അന്തരീക്ഷത്തിലെ ഒര് വായു ശ്വസിക്കുന്നതുപോലെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്